അഞ്ച് അഞ്ച് രണ്ടായിരത്തി പത്ത് ഏഴ് അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ഒൻപത് ആറ് രണ്ടായിരത്തി പതിനാറ് ഏട്ട് ഏഴ് രണ്ടായിരത്തി പത്തൊൻപത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്